ഞാൻ കൂടുതലും വനിത ആ മാസികയാണ് ഞാൻ വായിക്കല് അപ്പം എനിക്ക് അതിൽ എന്നു വച്ചാൽ അതിലിപ്പോൾ നമ്മൾ കാണുമ്പം തന്നെ ഇപ്പോൾ സിനിമ നടി നടൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം വച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് എടുത്തു വായിക്കാൻ ഇങ്ങനെ തോന്നും അപ്പം ഞാൻ അയിതിലാണ് കൂടുതലും എടുക്കല് പിന്നെ അത് അതിനകത്ത് ഓരോ ഇവരുടെ തന്നെ കാര്യങ്ങളും ഓരോന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് അതാന്ന് ഞാൻ എടുക്കല് വനിതയാണ് ഞാൻ എടുക്കല് പിന്നെ അതേപോലെതന്നെ നമ്മളെ നക്ഷത്രത്തിനെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണം പാചകത്തിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാവും അതിനകത്ത് അപ്പോൾ അതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൂടുതലും വനിതയാണ് എടുക്കല് അതാണ് ഞാൻ എപ്പോഴും വായിക്കല് അധികവും അതെടുത്ത് അത് അതെല്ലാം മാസാമാസം വനിത വരുന്നത് ഞാൻ വായിക്കലുണ്ട് അപ്പം ഞാൻ വനിതയാണ് കൂടുതലും വായിക്കല് ഇതിൽ ഇങ്ങനെ പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൽ വരുന്ന ഈ വനിതയിൽ വന്നിട്ടുള്ള ഒരുപാട് പാചകങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ള ഓരോ കറികളാണെങ്കിലും ഓരോരോ പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും വനിത എടുക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് അതിലിങ്ങനെ ഓരോ സിനിമ നടി നടൻ്റെയൊക്കെ ഫോട്ടോ വച്ചിട്ടുള്ള ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് അത് ഒന്ന് എടുക്കണം വായിക്കണം എന്നുള്ള ഒരു തോന്നലാണ് അപ്പം അത് ഞാൻ കൂടുതലും വനിതയാണ് വായിച്ചിട്ടുള്ളത് അപ്പം അതിലുള്ള ഇതെല്ലാം എനിക്ക് ഈ നക്ഷത്രത്തിനെപ്പറ്റി അറിയാനും എല്ലാം ഭയങ്കര ഒരു താല്പര്യമാണ് അതുകൊണ്ടു ഞാൻ അതുതന്നെ കൂടുതലും ഇങ്ങനെ എടുക്കും വായിക്കും അങ്ങനെ എല്ലാ മാസത്തിലും ഞാൻ എടുത്തു വായിക്കലുണ്ട് പാചകം അതേപോലെതന്നെ നമുക്ക് എന്തെങ്കിലും അസുഖത്തിനെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് കൂടുതൽ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നാണ് ഡോക്ടറിന്റെയൊക്കെ കാര്യങ്ങൾ പറയുന്ന അപ്പോൾ അതെല്ലാം വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അറിവ് കിട്ടുന്നത് പോലെയാണ് അതെല്ലാം ആണ് കുറച്ചു കൂടി നോക്കല്